ഞാനൊരു ചെരിപ്പ് മേടിച്ചായിരുന്നു ആ ചെരിപ്പ് വളരെ മോശം അത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതായിരുന്നു അത് ഒത്തിരി പൈസ കൊടുത്ത് മേടിച്ച ഒത്തിരി നാൾ നീണ്ട് നിൽക്കും നല്ല ചെരിപ്പാണെന്നൊക്കെ പറഞ്ഞ് വെച്ചാൽ അത് ഭയങ്കര നല്ല മോശായിപ്പോയി നാല് ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഇട്ടതേ ഉള്ളൂ ഇതിൻ്റെ സോള് ഇളകാൻ തുടങ്ങി ഭയങ്കര സൗണ്ട് ആണ് അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു അപ്പം എനിക്ക് നല്ല രീതിയിൽ ഒരു പ്രോഡക്റ്റ് അല്ല കിട്ടിയത് നല്ലതാണെന്നൊക്കെയാ പറഞ്ഞ് നമ്മൾ വാങ്ങിച്ചതായിരുന്നു പക്ഷെ അത് നല്ലതുപോലെ നമുക്ക് കിട്ടിയില്ല പിന്നെ അതുകൊണ്ടെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് ആ ചെരുപ്പ് വാങ്ങിച്ചതിലൂടെ അപ്പം ചെരിപ്പ് ഞാൻ നല്ല സൈസും നല്ല കമ്പന്യും ഒക്കെ നോക്കി വേടിച്ചതാണ് പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമായി പോയി വാങ്ങിച്ച് കഴിഞ്ഞപ്പം അത് നമുക്ക് നല്ല പോലെ കിട്ടുകേല നമ്മളാഗ്രഹിച്ചത് പോലെ കിട്ടിയില്ല ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് കാൽ വേദനയൊക്കെയായിരുന്നു ഒട്ടും നടക്കാനൊന്നും പറ്റിയില്ല ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയായിരുന്നു സോ അതുകൊണ്ട് ഭയങ്കര നെഗറ്റീവ് എനിക്ക് ഭയങ്കര എൻ്റെ പ്രോഡക്റ്റില് ഭയങ്കര വിഷമമായി പോയി അതുകൊണ്ടിനി അടുത്ത പ്രാവശ്യം തൊട്ട് ഞാനത് വാങ്ങില്ല ഇനി വേറെ കമ്പനിയങ്ങനെ ഞാൻ നോക്കത്തേയുള്ളൂ ഇത് വാങ്ങിച്ച് ഈ കമ്പനി ഒരു വെച്ചാൽ ഞാൻ ആദ്യമായിട്ടല്ല ഇതിന് മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം കുഴപ്പം ഇല്ലായിരുന്നു ഇപ്പം ഈ അടുത്ത കാലത്ത് വാങ്ങിച്ചപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് ആദ്യമായിട്ടാണെനിക്ക് ഇങ്ങനെ സംഭവിച്ചത് ഒരു ഒരു മാസം ആയതേ ഉള്ളൂ അറുന്നൂറ് രൂപ കൊടുത്ത് വേടിച്ച ചെരുപ്പാ അതെനിക്ക് ഒരു രണ്ട് മാസം പോലും എനിക്ക് ഇടാൻ പറ്റിയില്ല ഒത്തിരി സൗണ്ട് കേൾക്കുന്ന് സോള് ഒക്കെ ഇളകിപ്പോയി അതുകൊണ്ട് ഭയങ്കര ഇതായിപ്പോയി